പുതിയ തലമുറ ജനിച്ച നാട്ടിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടികൾ ആയാലും ആൺകുട്ടികൾ ആണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞുകഴിഞ്ഞാൽ വിദേശരാജ്യങ്ങളിലേക്ക് പോവാൻ ശ്രമിക്കുകയാണ് പിന്നെ എങ്ങനെ നാട്ടിലുള്ള തായ് യുവ തലമുറയ്ക്ക് അവർക്ക് അനു അനുയോജ്യരായ പങ്കാളികളെ കിട്ടും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഗ്രാമങ്ങളിൽ താമസിക്കുന്നതുതന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും അവർ നഗരങ്ങളിലേക്കും മറുനാടുകളിലേക്കും പോവുകയാണ് നമ്മുടെ നാട്ടിലുള്ള സൗകര്യങ്ങളേക്കാൾ അവർ ആകൃഷ്ടരാകുന്നത് നഗരങ്ങളിലെ സൗകര്യങ്ങളാണ് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇപ്പോൾ നഗരങ്ങളിലുള്ളത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പബ്ബുകളും ക്ലബ്ബുകളും ഒക്കെയുള്ള നഗരങ്ങളെയാണ് എല്ലാ പുതിയ തലമുറയ്ക്കും താൽപര്യം നമ്മുടെ നാട്ടിൽ തന്നെ പ്രായമായവർ മാത്രം താമസിക്കുന്ന എത്രയോ വീടുകളാണുള്ളത് പുതിയ തലമുറയിലെ എല്ലാ കുട്ടികളും എൺപത് ശതമാനത്തോളമെങ്കിലും വിദേശ രാജ്യങ്ങൾ പഠിക്കുകയോ ജോലി നോക്കുകയാണ് അപ്പോൾ അവർക്ക് ചേർന്ന പങ്കാളികളെ അവർ അവടെ നിന്നും കണ്ടുപിടിക്കുന്നു ഗ്രാമങ്ങളിൽ താമസിക്കുന്ന യുവതലമു ജനങ്ങൾക്കാകട്ടെ അവർക്കിഷ്ടപെട്ട പങ്കാളികളെ കിട്ടാനുള്ള സാഹചര്യം കുറവാണ് എല്ലാ വിദേശരാജ്യങ്ങളുടെ വർണ്ണപ്പകിട്ടാർന്ന ജീവിതം രീതികളെ ഇഷ്ടപ്പെടുന്നവരാണ് ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ കൂലിപ്പണിക്കാർക്കോ തുടങ്ങിയ പെൺകുട്ടികൾ തുടങ്ങിയവർക്ക് പെൺകുട്ടികളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പെൺകുട്ടികളും എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്കും അവരുടെ ജീവിതപങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിൽ അവരുടെ താൽപര്യം തുറന്ന് പറയുന്നവരാണ് പണ്ട് മാതാപിതാക്കൾ പറയുന്നവരെ വിവാഹം കഴിക്കുന്നവരായിരുന്നു പെൺകുട്ടികൾ ജീവിക്കാൻ പറ്റിയ സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അവർ മറ്റൊന്നും നോക്കിയിരുന്നില്ല ഏജ് വ്യത്യാസം പോലും നോക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പെൺകുട്ടികൾക്ക് വ്യക്തമായ അഭിപ്രായങ്ങളും ഡിമാൻഡുകളും ഉണ്ട് രണ്ടോ മൂന്നോ വയസ്സ് വ്യത്യാസമേ ഇപ്പോഴുള്ള കുട്ടികൾ സമ്മതിക്കൂ അവർ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് നടത്തുന്നവരാണ് നല്ല ജീവിത സൗകര്യങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ അവർ ഒരു അഡ്ജസ്റ്റുമെൻറുകൾക്കും തയ്യാറല്ല അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികൾ പങ്കാളികളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ കാലിൽ നിന്നുകൊണ്ടുതന്നെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അവരുടെ താൽപര്യങ്ങളും അവകാശങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടേതായ താൽപര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാമുണ്ട് അവർക്കതിൽ അവരുടേതായ രീതികളും ജീവിതരീതികളും ഒക്കെ അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ മറ്റുള്ളവരുടെ തീരുമാനങ്ങളോ ഇപ്പോഴുള്ള ജാ യുവതലമുറകളിൽ അടിച്ചേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്കിഷ്ടമുള്ള